സാധാരണ നമ്മുടെ നാട്ടിൽ പെൺകുട്ടിക്ക് ഒരു പതിനെട്ട് വയസ്സും ആൺകുട്ടികൾക്കാണെങ്കിൽ ഒരു ഇരുപത്തിയൊന്ന് വയസ്സും അതിനു മോളിലൊക്കെ ആവുമ്പോഴാണ് കല്യാണത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം ആരംഭിക്കുന്നത് പിന്നീട് ഒരു പെൺ കല്യാണ ആലോചിച്ചു വന്നു കഴിയുമ്പോൾ ഇത് ചെറുക്കൻ പെണ്ണുകാണാൻ ആൾക്കാരെയും കൂട്ടി കാരണവന്മാരെയും കൂട്ടിയിട്ട് പെണ്ണ് കാണാൻ വന്നു കഴിയുമ്പോൾ പെണ്ണിനെ കണ്ട് ഇഷ്ടമായിട്ട് ചായ സൽക്കാരവും എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം ഉറപ്പിച്ചിട്ട് പോവും അത് കഴിഞ്ഞു പിന്നീട് കുറച്ച് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എല്ലാം തിരികെ പോവും പിന്നീട് അടുത്ത ഒന്നു കൂടി ഒരു ഉറപ്പിക്കൽ ചടങ്ങ് ഒരു ചെറിയൊരു സദ്യ അതെല്ലാം ഒന്ന് കണ്ട് ചെറിയൊരു സദ്യ വട്ടം എല്ലാം കഴിഞ്ഞ് അടുത്ത ഒരു ഒന്നുകൂടി അടുത്ത ബന്ധുക്കൾ കുറച്ച് ആൾക്കാരെ കൊണ്ടു വന്നിട്ട് ഒന്നുകൂടി ഒരു ഇതാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ അത് കഴിയുമ്പോൾ പിന്നെ എൻഗേജ്മെൻ്റ് അതിനുള്ള തീയതി ഉറപ്പിച്ച് കഴിയും കഴിയും അതു കഴിഞ്ഞ് അവർ എൻഗേജ്മെൻ്റിന് ഉള്ള ഇത് ഡ്രസ്സ് എടുക്കലും അത് അതിനുള്ള ആൾക്കാരെ ക്ഷണിക്കലും സ്വർണ്ണം എടുക്കലും എല്ലാം അതൊക്കെ കഴിഞ്ഞു എൻഗേജ്മെൻ്റ് ഡേറ്റ് വന്നു കഴിയുമ്പം അങ്ങനെയൊക്കെ അതെടുത്ത് എൻഗേജ്മെൻറ്റിന് തീയതി എടുത്തു കഴിഞ്ഞാ എൻഗേജ്മെൻറ്റും പിന്നെ അത്യാവശ്യം വിളിക്കേണ്ട ആൾക്കാരെയെല്ലാം ബന്ധുക്കളെയും നാട്ടുകാരെയും എല്ലാം വിളിച്ചു കൂട്ടി എൻഗേജ്മെൻ്റ് തീയതി ഉറപ്പിച്ചിട്ട് എല്ലാം അതുകഴിഞ്ഞ് എൻഗേജ്മെൻ്റ് ദിവസം ഇത് മോതിരം കൈമാറാനുണ്ട് ചെറുക്കൻ പെണ്ണിനെ വിവാഹമോതിരം അണിയിക്കും പെണ്ണ് ചെറുക്കനും പേരെഴുതിയ മോതിരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും പരസ്പരം അത് കഴിഞ്ഞ് ഒരു കുറേ ഫോട്ടോസ് എല്ലാം എടുക്കാനുണ്ട് അത് വയസ്സായ ആൾക്കാരെയും അത്യാവശ്യം അവര ഫ്രണ്ട്സിനെയും ഇതിനെല്ലാം നിർത്തിയിട്ട് വീട്ടുകാരെയും കുടുംബക്കാരെയും പരിചയക്കാരെ എല്ലാം നിർത്തി ഫോട്ടോസ് എല്ലാം എടുക്കും ഇത് കാലങ്ങളായിട്ട് സദ്യ അത് സദ്യവട്ടങ്ങൾ അതിന്റെ ഫങ്ക്ഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു സദ്യവട്ടങ്ങളെല്ലാം കഴിഞ്ഞിട്ട് രണ്ടുപേരും അവരോര വീടുകളിലോട്ട് അവരെല്ലാം പോവും ഇതെല്ലാം കഴിഞ്ഞ ശേഷം അടുത്ത് കല്യാണത്തിനുള്ള തീയതി ഇതായിക്കഴിയുമ്പോൾ

കല്യാണത്തിൻ്റെ എല്ലാം ഇതായിക്കഴിഞ്ഞിട്ട് പിന്നെ ഇത് കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളായി കഴിയും കല്യാണ ഡ്രസ്സ് സ്വർണം വാങ്ങൽ കല്യാണത്തിന് ഇത് ലെറ്റർ അടിക്കലും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഒന്നിനു പുറകെ ഒന്നായിട്ട് നടന്നുകൊണ്ടിരിക്കും പിന്നെ കല്യാണം ക്ഷണിക്കാൻ പോവുന്നത് അതെല്ലാം കഴിഞ്ഞ് കല്യാണ തീയതികൾ അടുത്ത് വരുമ്പം അമ്പലത്തിൽ വെച്ചാണെങ്കിൽ അമ്പലത്തിൽ അല്ലെങ്കിൽ കല്യാണ മണ്ഡപത്തിലാണെങ്കിൽ കല്യാണ മണ്ഡപത്തിൽ ഇതെല്ലാം ആയിട്ട് നല്ല രീതിയിൽ ഫങ്ഷൻ ഇതായിട്ട് നടക്കും അവസാനം ഫോട്ടോ ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഇതാക്കിയിട്ട് ഇത് പിന്നെ ചെറുക്കൻ പെണ്ണിനെ നെറ്റിയിൽ സിന്ദൂരം അണിയിക്കും അതുകഴിഞ്ഞ് പിന്നെ ചെറുക്കൻ പെണ്ണിനെ താലിമാല താലിമാലയിടും പെണ്ണ് ചെറുക്കന് ഒരു മാലയിട്ടു കൊടുക്കും അതിനു പിറകേ ഇത് ഇത് മറ്റേ പൂമാല വരണമാലയണിയിക്കും ചെറുക്കൻ പെണ്ണിന് പിന്നെ പെണ്ണ് ചെറുക്കന് വരണമാല അണിയിച്ച് അതുകഴിഞ്ഞ് പിന്നെ അച്ഛനോ പെണ്ണിൻ്റെ അച്ഛനോ അമ്മാമന്മാരെല്ലാം കൂടി ചേർന്നിട്ട് ചെറുക്കന് പെണ്ണിനെ കൈപിടിച്ച് ഏൽപ്പിച്ചു കൊടുത്തിട്ട് കതിർമണ്ഡപത്തിൽ ചുറ്റും മൂന്നു പ്രാവശ്യം വലം വയ്ക്കും കയ്യും പിടിച്ചുകൊണ്ട് കയ്യും പിടിച്ച് വലം വെച്ച് മൂന്നു പ്രാവശ്യം അതിനുശേഷം അവരവരുടെ സീറ്റിലവിടെ ഇരിക്കും പിന്നീട് എല്ലാം ആൾക്കാരെല്ലാം ബന്ധുക്കളെല്ലാം അരിയും നുള്ളി തലയിൽ വെച്ച് അനുഗ്രഹിച്ചിട്ട് കൂടെ നിന്ന് ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് എല്ലാം കഴിയുമ്പോൾ അവർ സദ്യ ഉണ്ണാനുള്ളവർ പോവും സദ്യയുടെ ഹാളിൽ എല്ലാം കഴിഞ്ഞ് ഒരു സദ്യ ഉണ്ട് അത് കഴിയുമ്പോൾ പെണ്ണിനെയും കൊണ്ട് സദ്യ നല്ല നല്ല ഇതാ സദ്യയും കഴിഞ്ഞു പെണ്ണ് പെണ്ണിനെയും കൊണ്ട് ഇവർ ഇത് ചെറുക്കൻ്റെ വീട്ടിലോട്ട് അങ്ങ് പോവും

ചെറുക്കൻ്റെ വീട്ടിൽ ആവുമ്പം പിന്നെ അതെല്ലാം കഴിയുമ്പോൾ അത് ഒരു കുറേ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർ കുറേ ട്രിപ്പ് സദ്യ ഉണ്ണാനിരിക്കും അതെല്ലാം കഴിയുമ്പോൾ ചെറുക്കൻ വന്ന അണിയിച്ചൊരുക്കിയ കാറിൽ പെണ്ണിനെ അങ്ങ് കൊണ്ടുപോവും ബാക്കി ഉള്ള ആൾക്കാർ അവരവർ വന്ന വാഹനത്തിൽ അങ്ങ് പോവും അതെല്ലാം കഴിഞ്ഞിട്ട് നല്ല അണിയിച്ചൊരുക്കിയ കാറിൽ പൂമാലയെല്ലാം ഇതാക്കിയിട്ടുള്ള കാറിൽ പെണ്ണിനെ ചെറുക്കൻ്റെ കാറിൽ അതെല്ലാം വെച്ച് അത് അലങ്കരിച്ചിട്ടുണ്ടാവും ആ കാറിൽ അങ്ങ് കൊണ്ടുപോവും അതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ ഇവർ തിരിച്ച് കല്യാണ സദ്യയെല്ലാം ഉണ്ടതിന് ശേഷം ഇങ്ങനെ ഇത് പോയിട്ട് പിന്നീട് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ അടുത്ത് വിരുന്ന് പോവണമെങ്കിൽ ഉള്ള ഇതൊക്കെ വരും വിരുന്ന് പോവുന്നതിന് അത്യാവശ്യം വിളിക്കേണ്ട ആൾക്കാരെ ഒക്കെ വിളിച്ചിട്ട് വിരുന്ന് വിരുന്നിനു എല്ലാം വി വിരുന്നിനെല്ലാം പോവും അവിടെ പെണ്ണ് പെണ്ണ് വീട്ടിൽ ആദ്യം ആദ്യം പെണ്ണ് വീട്ടുകാർ ചെറുക്കൻ്റെ വീട്ടിലോട്ട് വരും അതുകഴിയുമ്പോൾ ചെറുക്കൻ്റെ വീട്ടുകാർ പെണ്ണിൻ്റെ വീട്ടിലോട്ട് വന്ന് വിരുന്ന് എല്ലാം ഇതാക്കും അളിയന്മാരുണ്ടെങ്കിൽ അളിയന്മാർ വന്നു കയറുന്ന ദിവസം വിരുന്നിനു വരുമ്പോൾ അളിയന്മാരുള്ളിടത്താണെങ്കിൽ അളിയന്മാർ പയ്യൻ്റെ കല്യാണ സഹോദരൻ്റെ കാലിൽ വെള്ളം കാല് കഴുകും കാല് കഴുകി അനുഗ്രഹിക്കും അപ്പോ അതേ സമയത്ത് എന്തെങ്കിലും ദക്ഷിണ കല്യാണ പയ്യൻ ഈ പയ്യൻ്റെ അളിയനുണ്ടെങ്കിൽ അളിയന് ദക്ഷിണയൊക്കെ കൊടുത്ത് വീട്ടിലോട്ട് വിളിച്ചു കയറ്റും അങ്ങനെ ആയിട്ട് അങ്ങനെ നല്ല ഇതായിട്ട് കല്യാണം സദ്യയൊക്കെ ഉണ്ട് അവിടെ വെച്ച് കുറേ നല്ല രീതിയിൽ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ആ ഒരു ചെറുക്കൻ്റെ ആൾക്കാരെയും ബന്ധുക്കളെയെല്ലാം പെണ്ണിൻ്റെ ആൾക്കാരെയും ബന്ധുക്കളെയെല്ലാം ചെറുക്കൻ കൂട്ടർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും എല്ലാം കൂടി

പിന്നെ ഇത്രയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇത് പെണ്ണ് പെണ്ണിനേയും വിളിച്ചുകൊണ്ട് പോകേണ്ട സമയം മുഹൂർത്തം ഇതെല്ലാം കഴിഞ്ഞ് രാഹുകാല സമയം ഇതെല്ലാം നോക്കി ഇതെല്ലാം കഴിഞ്ഞ ശേഷം പെണ്ണിനെയും വിളിച്ചുകൊണ്ട് ചെറുക്കൻ ചെറുക്കൻ്റെ വീട്ടിലോട്ട് അങ്ങ് പോവും അതിനൊപ്പം തന്നെ അത് കഴിയുമ്പോൾ ബാക്കി വന്ന അത്യാവശ്യം ബന്ധുക്കളെല്ലാം വീട്ടിലുണ്ടെങ്കിൽ അവർ പോയതിന് ശേഷം അതിന്റെ പുറകേ അവരും യാത്രയൊക്കെ ആവും അങ്ങനെയാണ് അങ്ങനെയാണ് സംഭവിക്കുക